ഒരു യാത്രക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ കടലുകൾ ഉള്ള സ്ഥലമാണ് കടലിനെ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ കടലിലെ തിരമാലകളുടെ വരവ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മണലുകളിലെഴുതിയിരിക്കുന്ന കടലമ്മ തോറ്റുവെന്ന് എഴുതിവെച്ചാൽ കടൽ തിര മായ്ച്ച് പോകുന്ന അവസ്ഥ അങ്ങനെ ഞാൻ കാണാൻ വളരെ ആഗ്രഹിക്കുന്ന വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ടു തന്നേ ഏറ്റവും കൂടുതൽ കടൽ തീരങ്ങളുള്ള ഗോവയിലോട്ട് പോകാനാണ് എനിക്കിഷ്ട്ം പോയതിൽ വെച്ചേറ്റവും ഇഷ്ടപ്പെട്ടതും ഇനി പോകാനാഗ്രഹിക്കുന്നതായൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ അത് ഗോവയാണ് ഗോവയിലെൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് എൻ്റെ പ എൻ്റെ അച്ഛൻ്റെ അനിയൻ അവിടെയാണ് സെറ്റിൽഡാണ് സോ ഞങ്ങളവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോകാനും ഇഷ്ട്മാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പാട് ബീച്ചുകളാണ് നമുക്ക് കാണാനുള്ളത് ബീച്ചുകളാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈ ലൈറ്റ്സും ടൂറിസ്റ്റേഴ്സിനെ ആകെ ടൂറിനസ്സ് ടൂറിസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നതും ഈ ബീച്ചുകൾ തന്നെയാണ് ഈ ബീച്ചുകളിൽ നമുക്ക് കുറേ ടൂറിസ്റ്റേഴ്സിനെ കാണാനും പറ്റും അതെ പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ അവിടുത്തെ വേറൊരു ഹൈ ലൈറ്റ്സ് ഡ്രിങ്ക്സ്സാണ് ഏറ്റവും കൂടുതൽ ഡ്രിങ്ക്സ് കിട്ടുന്നത് ഗോവയാ ഗോവയിലെ ഏറ്റവും നല്ല ഫേമസ് ഡ്രിങ്ക് ആയിട്ടുള്ള ഫെനി അതൊക്കെ അവിടുത്തെ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഗോവയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ബീച്ചുകളാണ് പിന്നെ അവിടെ കൂടുതലായിട്ട് കാണാനുള്ളത് കുറേ മല കാട് കുന്ന് പിന്നെ ഒരു ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ ഒരു മരത്തിൽ കൊത്തി അല്ല കല്ലിൽ കൊത്തി വെച്ചൊരു ക്ഷേത്രമൊക്കെയുണ്ട് അതൊക്കെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഗോവയിലെ പിന്നെ ഏറ്റവും കൂടുതൽ പറയാച്ചാൽ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ളത് ഗോവയിലെ ക ഈ കടലുകൾ തന്നെയാണ് കടലുകളിലെ സീ ഫുഡ്സ് പിന്നെ ഒ ഒരോ കടലിനോട് ചേർന്ന് ഓരോ സീയുടെ പ്രദേശത്തോട് ചേർന്നുള്ള ഓരോരോ ഹോട്ടൽസ് അവിടുത്ത ഫുഡുകൾ അതൊക്കെ ഏറ്റവും വളരെ രസവും നല്ല കാണാനും ഭംഗിയുണ്ട് ആസ്വദിക്കാനും വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഗോവ അതുകൊണ്ട് തന്നെ എനിക്ക് കടൽ കടലുകൾ കൂടുതലുള്ള സ്ഥലങ്ങൾ പോകാനാണ് എനിക്കിഷ്ടം